ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള ഫോട്ടോസ് എടുക്കാറുണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫോട്ടോസ് എടുക്കാറുള്ളത് പ്രകൃതിയെത്തന്നെ ആണ് പ്രകൃതിയിലുള്ള സംഭവങ്ങളെ പറ്റിയാണ് കൂടുതലും ഞാൻ നിരീക്ഷിക്കാറും ഫോട്ടോസ് എടുക്കാറും അതായത് ഓരോരോ യാത്രകൾ ചെയ്യുമ്പോൾ ഓരോരോ സ്ഥലങ്ങള് കാണുമ്പോൾ എനിക്ക് ഫോട്ടോസ് എടുക്കാൻ തോന്നും ഒരുപാട് ഫോട്ടോസ് പ്രകൃതിയെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് എടുക്കാറ് മലകളും പുഴകള് അങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോസ് ആണ് ഞാൻ എടുക്കാറ് അത് കൂടാതെ പിന്നെ എടുക്കുന്ന ഫോട്ടോസ് എന്നുപറയുന്നത് മൃഗങ്ങളുടെ ഫോട്ടോസ് ആണ് പ്രകൃതിയിൽ കാണുന്ന ചെറിയ ചെറിയ ചെറിയ ജീവികള് പൂമ്പാറ്റ തുമ്പി മുതലായ അങ്ങനെയുള്ള കുറെ ഫോട്ടോസ് എടുക്കാറുണ്ട് കൂടുതലായിട്ടും എനിക്ക് കൂടുതൽ താല്പര്യവും എടുക്കാൻ ഇഷ്ടമുള്ളതും ആയ ഫോട്ടോസ് പ്രകൃതിയുടെത് തന്നെ ആണ് കാരണം ഓരോ ഫോട്ടോസ് എടുക്കുമ്പോഴും അതിൽ ഓരോരോ പുതിയ പുതിയ അനുഭവങ്ങള് നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്